ഹലോ ഹലോ ബ്രോ മറ്റേ മെക്കാനിക്ക് അല്ലേ ബ്രോ ബ്രോ ഇതെൻ്റെ കൂട്ടുകാരൻ തന്ന നമ്പറായിരുന്നു ബ്രോടെ പേര് ശ്രേയസ് മച്ചാ ഞാൻ എൻ്റെ വണ്ടി മാരുതി എയിട്ട് ഹൺഡ്രഡാ അ അപ്പോൾ ഞാൻ ഈ ഈ വണ്ടി പോകണ വഴിയിൽ റണ്ണിങ്ങിത്തന്നെ ഓഫാവലും ഇടയ്ക്ക് ഒരു മിസ്സിംഗ് വന്ന് സ്റ്റക്കാവലും കുറച്ചു സീനാണ് ഞാൻ പണിയെല്ലാം എടുപ്പിച്ചതാണ് എൻജിൻ പണിയെല്ലാം കഴിഞ്ഞതാണ് മോഡല് നൈൻറ്റീൻ നൈൻറ്റി സിക്സ്

വേറെ വേറെ പ്രത്യേകിച്ച് കംപ്ലൈൻറ്റൊന്നും തോന്നുന്നില്ല റണ്ണിങ്ങിൽത്തന്നെ ഇടക്ക് ഒരു മിസ്സിംഗ് വരാൻ അതുപോലെ നിന്ന് പോകുവാണ് പിന്നെ കുറച്ചു നേരം നിർത്തിയിട്ട് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു സ്റ്റാർട്ട് ആകും ബാറ്ററി നോക്കി മച്ചാ ബാറ്റെറിയൊക്കെ പക്കയാണ് ബാറ്ററി ഞാൻ ഇത് സെക്കൻ ഹാൻഡ് എടുത്തായിരുന്നു ഇത് ഇവിടെ മേപ്പാടിന്ന് എടുത്ത വണ്ടിയാണ് ബാക്ക് അ മേപ്പാടിന്ന് എടുത്ത വണ്ടിയാണ് ബാറ്റെറിയൊക്കെ പക്കയാണ് അവന്മാർ തന്നെ പണിയെല്ലാം അത്യാവശ്യം എടുപ്പിച്ചിട്ടാണ് തന്നത് പിന്നെ രണ്ടാമത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പം പിന്നെ എൻജിൻ പണിയുണ്ടായിരുന്നു അങ്ങനെ രണ്ടാമത് എൻജിൻ പണിയെടുത്ത് എല്ലാം സെറ്റ് ആക്കിയെടുത്ത വണ്ടിയാണ് ഞാൻ പോ അ ഓയിലൊക്കെ ഓയിലൊക്കെ നൈസായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോണുണ്ട് ഞാൻ കോഴിക്കോടിന്നാണ് പണിയെടുത്തത് അ കോഴിക്കോടിന്നാണ് പണിയെടുത്തത് അ വണ്ടിയെടുത്തത് മേപ്പാടിന്നാണ് കോഴിക്കോടിന്നാണ് പണിയൊക്കെ എടുത്തത് അ റണ്ണിങ്ൽ വണ്ടി ഇടക്ക് ഫസ്റ്റ് നൈസായിട്ട് ഒരു മിസ്സിംഗ് വരും പിന്നെ ഇടക്കൊന്ന് ഓഫാകും ഓഫായി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടാക്കുമ്പോൾ പിന്നെ മിസ്സിംഗ് വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആകുമ്പോൾ ഒരു സീനില്ലേ അതുകണക്കാണ് വരുന്നത് ശരി ഇതിൻ്റെ സ്ഥലം എവിടെയാണ് വരുന്നത് മാനന്തവാടി എവിടെയായിട്ട് വരണം എരുമത്തെരുവ് അ എട്ടോ എന്നാൽ ഞാൻ അങ്ങോട്ട് കൊണ്ട് വരാം നാളെ എത്തിക്കട്ടെ വണ്ടി എന്നാൽ നാളെ എത്തിച്ചേക്കാം അ അതിൻ്റെ കാർബേറ്റോർൻ്റെ ആണോന്ന് എനിക്ക് നല്ലൊരു ഡൌട്ട് ഉണ്ട്

അട്ടെ എന്നാൽ ഞാൻ എന്നാൽ എരുമത്തെരുവ് എത്തിക്കാം എന്നാൽ ഇ ഇ ഈ നമ്പറിൽ തന്നെയല്ലേ വിളിക്കേണ്ടത് ഓക്കെ മച്ചാ അ എന്നാൽ ഞാൻ എന്നാൽ അവിടെ എത്തിയിട്ട് വിളിക്കാം ഷോപ്പ് എത്ര മണിക്ക് ഓപ്പണാവുക ഒൻപത് മണി ഓക്കെ ഞാൻ എന്നാൽ ഒരു പത്ത് പത്തേകാലാവുമ്പോഴ്ത്തെക്ക് അവിടെ എത്താം കേട്ടോ ഒ ഓക്കെ